സ്കൂളുകളിൽ പഠിക്കുന്ന സമയത്ത് ചിത്രരചന മത്സരങ്ങൾ അതുപോലെ അങ്ങനെ ഒരുപാട് പരിപാടി ഉണ്ടായിരുന്നു അപ്പോൾ ആ പരിപാടികൾക്കെല്ലാം നമുക്ക് വരയ്ക്കാൻ ഒന്നും അറിയില്ലെങ്കിൽ കൂടി നമ്മൾ ആ പരിപാടികളില്ലെല്ലാം പങ്കെടുക്കുമായിരുന്നു പിന്നെ കോളേജുകൾ എന്നു പറയുമ്പോൾ നമ്മുടെ ഇവിടെയാണെങ്കിൽ സീഡിറ്റ് പറഞ്ഞൊരു ഇൻസ്റ്റിട്യൂഷനാണുള്ളത് അപ്പോൾ അവിടെ നമുക്ക് ചിത്രരചന പഠിക്കാനും അതുപോലെതന്നെ മത്സരങ്ങളിൽ പങ്കെടുക്കാനും ഒക്കെ ഉള്ളൊരു അവസരം അവരൊരുക്കുന്നുണ്ട് പിന്നെ ഉള്ളത് നമ്മൾ ആത്മാർത്ഥമായിട്ട് ഒരു നമ്മൾ ചിത്രം വരച്ച് നടക്കുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ ആൾക്കാർ പറയും ഓ വേറെയൊരു പണിക്കും പോവാണ്ട് അതു മാത്രം ചെയ്യുന്നതെന്ന് പറയും അപ്പോൾ നമ്മൾ ആത്മാർത്ഥമായിട്ട് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലക്ഷ്യത്തിൽ എത്താൻ നമുക്ക് കഴിയും ഒരുപാട് നല്ല നല്ല ചിത്രങ്ങൾ നമുക്ക് വരയ്ക്കാൻ കഴിയും അപ്പോൾ അതുപോലെതന്നെ നമുക്ക് സ്കൂളുകളിലാണെങ്കിലും കോളേജുകളിലാണെങ്കിലും അല്ലെങ്കിൽ പുറത്താണെങ്കിൽക്കൂടി നമുക്ക് ആ ഒരു അവസരത്തിന് ചിത്രം വരയ്ക്കുന്നതിന് നല്ല ഒരു അവസരമാണുള്ളത് നമ്മൾ ഇപ്പോൾ നമ്മളൊരു നല്ല ചിത്രം വരച്ച് കഴിഞ്ഞാൽ ആൾക്കാര് കണ്ട് കഴിഞ്ഞാൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇപ്പോൾ നമ്മുടെ ചിത്രം തന്നെ നമ്മൾ വരച്ചിട്ട് ആർക്കെങ്കിലും കാണിച്ച് ഇങ്ങനെ കാണിച്ച് കൊടുക്കുകയാണെങ്കിൽ അവർക്ക് ഒരുപാട് ഇഷ്ടപ്പെടും ഇത്രയും നല്ല വരയ്ക്കുന്നൊരു വ്യക്തി ഉണ്ടോയെന്നൊക്കെ നമ്മൾ ചിന്തിക്കില്ലേ അപ്പോൾ അങ്ങനെ നമ്മുടെ ഇവിടെ ഉള്ള ഇൻസ്റ്റിട്യൂഷൻ സീഡിറ്റ് എന്നു പറഞ്ഞൊരു ഇൻസ്റ്റിട്യൂഷൻ ആണ്